കർഷക ആത്മഹത്യയെക്കുറിച്ച് പറയാനാണെങ്കില് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അവര് വലിയ ലോണ് കാര്യങ്ങളൊക്കേ എടുത്തിട്ട് അവർക്കത് അടയ്ക്കാൻ പറ്റാത്തൊരസ്ഥ വരുമ്പഴാണ് അവര് ആത്മഹത്യയെക്കുറിച്ച് ഓർത്തിട്ട് ആത്മഹത്യ ചെയ്യുന്നത് തന്നെ അപ്പം എന്ന് വച്ചിട്ടുണ്ടെങ്കില് മെയിൻ ആയിട്ട് ഈ കൃഷി സംബന്ധിച്ച കാര്യങ്ങൾക്കൊക്കെ അവര് വലിയ വലിയ ലോണ് എടുക്കും അപ്പം ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാം എന്നുള്ളൊരു മനോഭാവത്തോടെയായിരിക്കും അവര് ലോണെടുക്കുന്നത് തന്നേ പക്ഷേ പിന്നേ കൃഷി ചെയ്തു വരുമ്പം ചിലപ്പോൾ അത് ലാസ്റ്റ് നമ്മളത് വിക്കു വിൽക്കുവൊക്കെ ചെയ്യുമ്പം ആ ലാഭം കിട്ടാതാവും അപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് വച്ചിട്ടുണ്ടെങ്കില് അവർക്കത് ലോണ് തിരിച്ചടക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും ചിലരൊക്കെ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലാധാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കേ വച്ചിട്ടായിരിക്കും ലോണെടുക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജപ്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കേ വരും എന്നുള്ളൊരു ഇതില് അവര് ലോൺ പിന്നേ ആത്മഹത്യ ചെയ്യുന്നതാണ് അപ്പം നമ്മള് എന്ന് വച്ചിട്ടുണ്ടെങ്കില് പിന്നേ സർക്കാര് ഇതിന് എന്തൊക്കെ മുൻകരുതലെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെന്തെങ്കിലും ധനസഹായം അങ്ങനത്തെ കാര്യങ്ങളൊക്കേ ആദ്യം തന്നേ കൊടുക്കുവാണെങ്കില് അല്ലെങ്കിൽ ഈ ഈ ലോണ് എഴുതി തള്ളുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലൊ അങ്ങനത്തെ അങ്ങനെ ഒക്കെ ചെയ്യുവാണെങ്കില് അവർക്ക് അത് വലിയ ഉപകാരം ആകും ഈ ആത്മഹത്യ ഒക്കെ എന്ത് എന്ത് എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആത്മഹത്യകളൊക്കെ ഇല്ലാതാകാനും ഇത് ഉപകരിക്കും